ആദ്യമായി വീട്ടിൽ എന്നാണ് നൃത്തം നിർത്തച്ചുവട് വെച്ച് തുടങ്ങിയത് വളരെ കാലം മുമ്പായിരുന്നു അത് എന്നിട്ട് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് വയസ്സേറിയപ്പോൾ ഒരു ഡാൻസിങ്ങ് ക്ലാസ്സിൽ ചേർന്നു ഡാൻസിങ്ങ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ സുഹൃത്തുക്കളും കുറെ ഉണ്ടാക്കി അവിടെ വളരെ സന്തുഷ്ടനായി നൃത്തം ചവിട്ടി നടന്നു വളരെയധികം നൃത്ത ചുവടുകൾ ഞാൻ പഠിച്ചെടുത്തു നൃത്തം പഠിച്ചെടുക്കൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് ഞാനാ നൃത്ത സ്കൂളിൽ പോയപ്പോൾ അവിടെ എല്ലാവരും എന്നെക്കാട്ടും വളരെ അധികം നൃത്ത ചുവടുകൾ പഠിച്ചവരായിരുന്നു അവർക്കെല്ലാർക്കും എന്നെക്കാളും നല്ല അറിവുണ്ടായിരുന്നു ജീവിതത്തിൽ ഞാൻ ചെയ്തതിലേറ്റവും നല്ലൊരു കാര്യത്തിലൊന്നായിരുന്നു ആ നിർത്തച്ചുവട് പഠിക്കാൻ ആ സ്കൂളിൽ പോയത് ആ സ്കൂളിൽ പോയപ്പോളാണ് എനിക്ക് നൃത്തച്ചുവട് ഇതിനെക്കാളും നല്ലം നല്ലോണം ചെയ്യാൻ പറ്റിയു പറ്റുമെന്നെനിക്ക് സ്വയമായൊരു ഉറപ്പ് വന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാനിത് ചെയ്തത് അങ്ങനാണതിൻ്റെ തുടക്കം